ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ലാബുകള് അതുപോലെ ഹോസ്പിറ്റലുകൾ എല്ലാം നല്ല നിലവാരത്തിലുള്ളതാണേലും നമു ക്ക് നേരിടുന്ന വെല്ലു വിളിയെന്നു പറയുന്നത് ഇന്ത്യയിലെ റോഡുകൾ അതുപോലെ നമുക്ക് ട്രാൻസ്പോട്ടേഷൻലാണ് വെല്ലുവിളികൾ വരുന്നത് പിന്നേ അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത്യാധൂനികമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഫെസിലിറ്റി യൂസ് ചെയ്യാനുള്ള സാഹചര്യമില്ല പിന്നെ അതുപോലെ തന്നെ ചെറിയ ചുരുങ്ങിയ സ്ഥലങ്ങൾ ഹോസ്പിറ്റല് അങ്ങനെയുള്ളവിടെ പുതിയ അത്യാധൂനിക ഫസിലിറ്റീസൊന്നും യൂസ് ചെയ്യാൻ ചാൻസില്ല സാധിക്കില്ലാ അതെല്ലാം ആരോഗ്യ സംരക്ഷണത്തിലെ സംവിധാനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ് പിന്നെ അതുപോലെത്തന്നേ ചില മരുന്നുകളുടെ മെഡിസിൻ റെയിറ്റ് കൂടുതല് എല്ലാം ആരോഗ്യ സംരക്ഷണത്തിൽ നേരിടും ഇത്രയൊക്കെയാണ് ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണത്തിൽ വരുന്ന വെല്ലുവിളികൾ അതുപോലെ ഇത് കറക്ടായി കണ്ടക്ട് ചെയ്ത് നടത്തുവാനുള്ള വ്യക്തികളുടെ ഇത് വ്യക്തികളുടെ അഭാവം അങ്ങനെയുള്ള ചിലര് പ്രോപ്പറായി ഇത് നടത്തുന്ന സാധനങ്ങള് എത്തിക്കുന്നതിലും വ പ്രവർത്തിക്കുന്നതിലും കോൺസെൻട്രറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അപ്പോളതൊക്കെ ഇതില് പെടും അതെല്ലാമാണ് ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണത്തിൽ വരുന്ന വെല്ലുവിളികൾ